പണ്ടെടുത്ത ഫോട്ടോകൾ എന്നുപറയുമ്പോൾ അന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കുന്നൊരു അവസ്ഥയിൽ അല്ല ഞാന് കാരണം ഇപ്പം ഞാനൊക്കെ ഇപ്പം വളർന്നു വന്ന് ഇപ്പം ഡിഗ്രീ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ആയതിനാൽ പണ്ടെടുത്ത ഫോട്ടോകള് ഒരുപാട് ഇവിടെ കല്യാണ ആൽബത്തിലൊക്കെ ഒരുപാടുണ്ട് എന്നാൽ ഇന്ന് ഡിജിറ്റൽ യുഗം ഡിജിറ്റൽ യുഗത്തിലോട്ട് വന്നപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി നമ്മുടെ മുന്നിലേക്ക് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാരണം ഫിലിം വേണ്ട ഒരു മെമ്മറി കാർഡ് പോലുള്ള ചിപ്പിടുന്നു ബാറ്ററി വെച്ച് ക്യാമറ വർക്കാവുന്നു എടുക്കുന്ന ഫോട്ടോകൾക്കാണെങ്കിൽ നല്ല ക്വാളിറ്റിയും നല്ല ദൃശ്യമികവോടുകൂടിയിട്ടുള്ള ഫോട്ടോകളുമാണ് അങ്ങനെ പക്ഷേ പഴയ ഫോട്ടോകൾക്ക് വൈകാരികമായ ഒരു മൂല്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അന്നത്തെ ആ ഒരു അവസ്ഥേല് എത്രെയോ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളാ ഫോട്ടോ എടുക്കുന്നതും അതിനെ കഴുകി പ്രിൻറ്റ് എടുത്ത് സൂക്ഷിക്കുന്നതും അതെല്ലാം ഒരു വൈകാരികമായ ഒരു അവസ്ഥ നമ്മുടെ മുന്നിലേക്ക് നൽകുന്നൊരു കാര്യമാണ്